പിന്നെ നൈസ് റസ്റ്റോറൻറ്റ് അല്ലേ കണിയാരം ഉള്ളത് നമ്മൾ പിടിയും കോഴി ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ഉച്ചക്കണോ വൈകുന്നേരം ആണോ പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി ആയിരുന്നേ അ അ അതെങ്ങനെയാ പിടിയും കോഴിയും ഒക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഒന്ന് പറഞ്ഞു തരാവോ അ അ ചിക്കൻ കറി അപ്പോൾ ചിക്കൻ കറി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ

അപ്പോൾ തേങ്ങ വറുത്തരച്ച കറി ആണല്ലേ പിടിയും കോഴിയും എങ്ങനെയാണ് റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് പിടിയും കോഴീൻ്റെയും

അ അ എത്ര പേർക്ക് കഴിക്കാം നാന്നൂറ് രൂപേൻ്റെ റേറ്റിന് എത്ര പേർക്ക് കഴിക്കാം നാല് പേർക്ക് കഴിക്കാലേ

അതിലേ ഇത് രണ്ടും സെപ്പറേറ്റ് റേറ്റ് ആണോ അതോ എല്ലാം കൂടെ ആണോ ഫോർ ഹൺഡ്രഡ്

ഒരു രണ്ട് പേർക്കൊക്കെ ആണേ എങ്ങനെയാണ് ഒരു നൂറ് രൂപ ആ ഒരു റേഞ്ചിനാണോ ഹാഫ് അല്ലേ അപ്പോൾ ടു ഹൺഡ്രഡ് അല്ലേ നമുക്കൊരു പത്ത് പേർക്കുള്ളതായിരുന്നു

ഞങ്ങൾക്ക് ഈ തിങ്കളാഴ്ച്ച ആകുമ്പോൾ ആണ് വേണ്ടത് ഹോം ഡെലിവറി ആണ് ഞങ്ങൾ ഇവിടെ മാനന്തവാടി ആണ് സ്ഥലം അപ്പോൾ നിങ്ങൾ അവിടെ വീട്ടിൽ എത്തിച്ച് തരില്ലേ അ ഓക്കെ ഓക്കെ ഒരു പത്ത് പേർക്കുള്ളത് കെട്ടോ തിങ്കളാഴ്ച്ച ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴേക്കും ഓക്കെ താങ്ക്യൂ മാം